എനിക്കേറ്റവും ഇഷ്ടമുള്ള സാധനമെന്നു പറഞ്ഞാൽ കോഴി വളത്തുന്നതാണെ എനിക്കൊരുപാട് ഒരു പത്ത് ഇരുപത്തഞ്ചോളം കോഴിയുണ്ട് ആ കോഴീനെ ഞാൻ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്തതെന്നു പറഞ്ഞാൽ കോഴി നല്ല ആദ്യം രാവിലെ തന്നെ കോഴീനെ എല്ലാം നല്ല നീറ്റായിട്ട് കോഴി കാഷ്ടമെല്ലാം എടുത്തു മാറ്റി അതുങ്ങളെ നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ച് അതുങ്ങൾക്കുള്ള ഭക്ഷണം കോഴിത്തീറ്റയാണെങ്കിൽ കോഴിത്തീറ്റ അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ എന്താണെന്നു വെച്ചാൽ ഞാൻ കറക്റ്റ് സമയത്ത് കൊടുക്കും ഇതിനിടയിൽ ഏതെങ്കിലുമൊരു കോഴിക്കൊരു അസുഖങ്ങളാണ് എന്തെങ്കിലും വന്നാൽ അവർക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക മേടിച്ചു കൂടിയൊടുക്കും അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളം കലക്കി കൊടുക്കും അങ്ങനെ കഴിവതും നമ്മളെ കൊണ്ട് മാക്സിമം ഞാൻ കോഴീനെ എങ്ങനെ ഭംഗിയാക്കി വളർത്താമോ ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ വളർത്തും കോഴിയെ എന്നും എന്നേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അത് നമുക്ക് ഇഷ്ടം പോലെ നമ്മളതു പോലെ നോക്കുമ്പം അതിൽ നിന്ന് നമുക്ക് അതു പോലെ നല്ല ആദായങ്ങളും കിട്ടും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ മുട്ടയായിട്ടും ഒക്കെ കിട്ടും അത് കടകളിൽ കൊണ്ട് കൊടുത്താൽ അതിനുള്ളത് കിട്ടും നമുക്ക് വീട്ടിലിരുന്ന് നല്ലൊരു രീതിയിലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇത് കോഴിയാണെന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം പിന്നതു പോലെതന്നെ പൂവൻ കോഴിയാണെങ്കിൽപ്പോലും അത് നാടൻ കോഴികളെ ആവശ്യമുള്ളവരുണ്ട് ഇപ്പം കോഴിപ്പനിയോ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇപ്പം ഒൾപ്പെട്ടുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ നല്ല വൃത്തിയായിട്ട് വളർത്തുന്ന കോഴികളാകുമ്പം അതനുസരിച്ച് നമുക്കാ കോഴീനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടു പോകാം അതു പോലെ അപ്പം നാടൻ കോഴികൾക്ക് അതു പോലെ വിലയും വരും അപ്പം അതു പോലെ അതു പോലെ ഈ കറുത്ത കോഴി കറുപ്പ് കോഴികൾക്ക് പ്രത്യേക അതിൻ്റെ മുട്ടക്കുമൊക്കെ അതിൽ പ്രത്യേക പരിഗണനയല്ലെ കൊടുത്ത കറുത്ത കോഴികളുടെ മുട്ട അപ്പം അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അതിനു വേണ്ട വേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങളും സമയത്ത് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളും വൈകുന്നേരമാകുമ്പം തന്നെ കുറച്ച് നേരമൊരു മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പം അതുങ്ങളെ എല്ലാറ്റിനെയും ഒന്ന് തുറന്നു വിട്ട് ഒന്ന് ചിക്കി ചികഞ്ഞ് അതുങ്ങൾക്കുമൊരു ഉല്ലാസമാകത്തക്ക രീതിയിൽ നല്ല രീതിയിലതിനെ കൊണ്ടു പോകാനുള്ള ഇതുമുണ്ട് അതു കൊണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് കോഴീനെ ചെയ്യുന്നതാണിഷ്ടം പിന്നെ പോരാത്തതിന് നമ്മുടെ വീട്ടിൽ പല പല ചെടികളുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കോഴി കാഷ്ടമോ അത് അതിന് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും കോഴികളുടെ കാഷ്ടമെടുത്ത് കരിവേപ്പിന് അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് അപ്പം അതിനൊരു വളമായിട്ടും നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ നമുക്ക് കോഴിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും അതു പോലെ ഏതു രീതിയിൽ അതിൻ്റെയിടയ്ക്ക് ഏതെങ്കിലുമൊരു കോഴിയ്ക്ക് പനി വന്നാൽ അതിന് സപ്രേറ്റ് നമ്മൾ മാറ്റി നിർത്തി അതിന് പ്രത്യേകം ശുശ്രൂഷിക്കണം അല്ലെങ്കിൽ കൂട്ടത്തിലിടുമ്പം മറ്റുള്ള കോഴികൾക്കും കൂടെ പിടിച്ച് മൊത്തം കോഴി പനിയായിട്ട് എല്ലാ കോഴികൾക്കും അതിൻ്റേതായിടത്ത് വരും ഇതെപ്പം അങ്ങനൊരിതുണ്ടാകാതെ ഒരു അസുഖം ഉള്ളൊരു കോഴി വരികയാണെ ആ കോഴീനെ സപ്രേറ്റ് നമ്മൾ മാറ്റി അതിനെ വേറെ ലോട്ട് കിടക്കുകയാണ് ബാക്കി ഉള്ളതിനെ അതു പോലെതന്നെ നമ്മൾ നോക്കുക അങ്ങനെ ഓരോ കാര്യത്തിനും ചെയ്യുക എല്ലാവർക്കും സമയത്ത് വെള്ളം കൊടുക്കുക പിന്നെ കുറച്ച് കുറേ ആണെങ്കിൽ എനിക്ക് കൊത്തി വിരിയിക്കാനും ഇഷ്ടമാണ് മുട്ടകൾ വെച്ച് കോഴി പിന്നെ കോഴികളെ വിരിച്ച് വിരിയിച്ച് ആ കുഞ്ഞുങ്ങളെ പ്രത്യേകം പരിപാലിച്ച് വരിക അതു കൊണ്ട് എന്തു കൊണ്ടും വീട്ടിൽ വീട്ടിൽ നടക്കുന്ന അമ്മമാർക്കും ഒരു ഹൗസ് വൈഫായിട്ടുള്ള അമ്മമാർക്ക് അവർക്ക് വീട്ടിലിരുന്ന് പത്ത് പൈസ ഉണ്ടാ അവരുടെ സാമ്പത്തിക മേഖലയിൽ പൊരുത്തപ്പെട്ടു പോകാൻ ഏറ്റവും ഉത്തമം ഈ കോഴി തന്നെയാണ് കോഴിയെ കൊണ്ട് നമുക്കൊരുപാട് ആദായങ്ങൾ കിട്ടും കോഴി മുട്ട വിറ്റാൽ കാശ് കിട്ടും പൂവൻ കോഴീനെ വിറ്റാൽ കാശ് കിട്ടും അതു പോലെ കുറേ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോഴിയിൽ കൊണ്ട് നമുക്ക് ചെയ്യാം പറ്റും കോഴി നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം പറ്റും അതു കൊണ്ടെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് അതിനെ പൊന്നു പോലെ കോഴീനെ ഞങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്നു അതാണ് എൻറ്റേതായിട്ടുള്ള ഒരിത് പിന്നെ പിന്നീ പൂവൻ കോഴിയാണെങ്കിൽപ്പോലും പൂവൻ കോഴിക്കിപ്പം നല്ല നാടൻ കോഴിയ്ക്ക് നല്ല വില കിട്ടും നാടൻ കോഴി മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട് കറി വെയ്ക്കാനുമൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്കും കൊടുക്കും ഈ പൂവൻ കോഴിയിൽ നിന്നും ഇങ്ങനെയൊക്കെയാണ് ഞാൻ കോഴി വളർത്തലായിട്ടുള്ള ഇതു ചെയ്യുന്നത്